ഞാൻ കഴിഞ്ഞ ആഴ്ച്ച ഒരു ഷൂ വാങ്ങിയായിരുന്നു അത് അപ്പം ആ ഷൂ എനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല കടകളിലും അന്വേഷിച്ചു പക്ഷേ എനിക്കത് ഒന്നും ഇഷ്ടപ്പെട്ടില്ല ലാസ്റ്റ് അത് നമ്മുടെ ടൗണി തന്നെ ലാസ്റ്റ് ചെന്നിട്ട് ഒരു കടയിൽ ചെന്ന് നോക്കിയപ്പം എൻ്റെ മനസ്സിന് ഇണങ്ങിയൊരു ഷൂ കണ്ടു അതിൻ്റെ വിലയും ചോദിച്ചു എല്ലാം നോക്കി എടുത്തു എടുത്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു പ്രോഡക്റ്റ് ആയിരുന്നു ആ ഷൂവ് എന്താ വെച്ചാൽ നമുക്ക് എവിടെ നമുക്ക് അതിനകത്ത് അത് ഭയങ്കര ഓ നമ്മൾ നടക്കുന്ന സമയത്ത് ഭയങ്കര സ്മൂത്ത് ആൻഡ് നല്ല നല്ല ഒരിതാണ് നടക്കാനും ഇങ്ങനെ ഓ ഇങ്ങനെ പോകും എങ്ങനെ പിന്നെ ഏത് എത്ര ദൂരം പോയെന്ന് പറഞ്ഞാലും നമുക്ക് കാലിന് ഒരു ഒരു ഒരു എന്തെങ്കിലും തോന്നിക്കുവോ ഒന്നും ഇല്ല കാൽ ഈ ഷൂ കാലേലുണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ല ഈ ഈ ഈ ഷൂവിൻ്റെ കാര്യം അത് നമുക്ക് മഴയത്തോ ചെളിയോ എല്ലാം എങ്ങനെ വേണേലും ഇടുവോം ചെയ്യാം പക്ഷേ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചാൽ അതേ ഗ്ലേസിങ്ങിൽ നല്ല ഓ നല്ല നല്ല നല്ല നല്ലതായിട്ട് ആ വാഷിങ്ങിൻ്റെ വെള്ളത്തിൽ കൈയിട്ട് നമ്മൾ എടുത്ത് കഴുയുമ്പോൾ ആ അതുപോലെ തന്നെ ഈ ഷൂ ഇങ്ങനെ ഓ വലുതായിട്ട് തോന്നിക്കുവാണ് അങ്ങനെ പോകുവോ ഒരു എത്ര ദൂരം അതുകൊണ്ട് ആ ഷൂ കൊണ്ട് യാത്ര ചെയ്താലും നമുക്ക് ഒരു ബുദ്ധിമുട്ടോ ഒന്നും സോ അലക്ക് സോഫ്റ്റ് ആൻഡ് ഓ സോഫ്റ്റാണ് ഭയങ്കര സോഫ്റ്റായിട്ട് കാലിന് നല്ല സുഖം തോന്നിക്കും അത് ആ ഷൂവ് എനിക്ക് ഇഷ്ടം എൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ഷൂവ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ഇഷ്ടപ്പെട്ട ഷൂവ് അപ്പം ആൾക്കാർക്കെല്ലാം ആ ഷൂവിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയാം കണ്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു ആ അപ്പോൾ അങ്ങനെ അപ്പം ഇത് എവിടുന്ന് മേടിച്ചെന്ന് വരെ പറഞ്ഞു അങ്ങനെ ആൾക്കാരെ ഓ ആൾക്കാർ പോയി അത് മേടിച്ച് തിരിച്ച് അത് മേടിക്കാൻ അവർ മേടിക്കാൻ മേടിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറായിട്ട് ഇരിക്കുന്ന പാർട്ടികളുണ്ട് പക്ഷേ ഇത് കണ്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ഒരു നല്ല ഗ്ലേ നല്ല ഗ്ലേസിങ്ങും ഷൈനിങ്ങുമുണ്ട് നല്ല ഷൈനിങ്ങാണ് കാണാൻ വേണ്ടി ഒരു ഇതെല്ലം നമ്മൾ സാധാരണ ഷൂവാണ് ഇത് ലെസുള്ള ഷൂവല്ല ഇത് നമ്മൾ ക്ലീനായിട്ടുള്ള നമ്മൾ കാലിലൊക്കെ കേറാനൊക്കെ കറ കറക്റ്റ് ഫിറ്റിംഗ് അളവും എല്ലാം നല്ല കറക്റ്റാണ് അപ്പം അതുകൊണ്ട് അത് എല്ലാം കൊണ്ടും ഏതായാലും നല്ലൊരു പ്രോഡക്റ്റാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ അത് യൂസ് ചെയ്യുന്നു ഒരു ഒരു അതിൻ്റെ അടിവശമൊക്കെ ആണെങ്കിൽ നല്ല നല്ല സോഫ്റ്റ് ഇത്തിരി നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടോ ഒരു ശബ്ദമോ ഒന്നും ഇല്ല നല്ല ക്ലീൻ ആൻഡ് ക്ലീനാണ് അങ്ങനെ ഏതായാലും അത് കിട്ടി എൻ്റെ മനസ്സിന് ഇണങ്ങിയ ഒരു ഷൂ തന്നെ ആയിരുന്നു അങ്ങനെ കിട്ടിയിട്ട് കുഴപ്പമില്ല അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പം